എൻ്റെ വീട്ടിലിപ്പോൾ ആർക്കെങ്കിലും അസുഖം വരികയോ എന്തെങ്കിലും വയ്യായ്ക വരികയോ വന്ന് കഴിഞ്ഞാല് ആദ്യം പറയുക നന്നായി ഭക്ഷണം കഴിക്കുക നന്നായി വെള്ളം കുടിയ്ക്കാ എന്നൊക്കെയാണ് കാരണം ഭക്ഷണം കഴിച്ചാൽ തന്നെ പകുതി അസുഖങ്ങളും മാറുമെന്നാണ് എൻ്റെ വീട്ടില് പറയാറ് നീരുവീഴ്ച വന്നുകഴിയുമ്പോൾ എൻ്റെ വീട്ടില് നല്ല ചൂടുള്ള മധുരമിട്ട നല്ല നാരങ്ങാവെള്ളം കുടിക്കാറുണ്ട് അത് രാത്രി കഴിച്ച് കഴിഞ്ഞാല് രാവിലെ ആകുമ്പഴേക്കും നീരുവീഴ്ച്ച ഒക്കെ കുറഞ്ഞ് നല്ല നല്ലൊരു ശമനം കിട്ടും അത് എപ്പഴും വർക്ക് ചെയ്യുന്ന ഒര് കാര്യമാണ് പിന്നെ എന്തെങ്കിലും വയറിനെന്തേലും സുഖമില്ല അങ്ങനെ എന്തെങ്കിലും അസുഖം വന്ന് കഴിഞ്ഞാൽ ജാതിയ്ക്കയും തേനും അങ്ങനെ ചു ജാതിക്ക ചുട്ടതില് അരച്ചിട്ട് തേൻ തേൻ ചേർത്തിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ വയറിളക്കം അങ്ങനൊക്കെ ശർദി അതൊക്കെ മാറാറുണ്ട് പിന്നെ വയറിളക്കം അങ്ങനൊക്ക വന്ന് കഴിഞ്ഞാല് നന്നായി വെള്ളം കുടിക്കുക പിന്നെ ഒ ആർ എസ് ഉണ്ടാക്കി കുടിയ്ക്കാറുണ്ട് ഒ ആർ എസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തില് നാര് നാരങ്ങയല്ല പഞ്ചസാരയും ഉപ്പുവിട്ടിട്ട് കുടിച്ച് കഴിയുമ്പോൾ അത് വയറിളക്കം വന്നുകഴിയുമ്പോൾ ഡീഹൈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമല്ലൊ അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഒ ആർ എസ് കുടിയ്ക്കാൻ പറയാറുണ്ട് പിന്നെ എൻറെ അപ്പാപ്പന് പനി വന്ന് കഴിഞ്ഞപ്പോൾ ഒരു പ്രവിശ്യം ബിരിയാണി ഉണ്ടാക്കി കഴിക്കണമെന്ന് പറഞ്ഞ് മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കാരണം പനി പനി അങ്ങനെ എന്തെങ്കിലും വയ്യായ്ക വന്ന് കഴിഞ്ഞാല് അത് ഭക്ഷണം കഴിച്ചാൽ മാറുമെന്നാണ് എൻ്റെ വീട്ടില് വിശ്വസിക്കുന്നത് അത് കാരണന്തന്നെ നന്നായി ഭക്ഷണം കഴിക്കുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അസുഖം വന്ന് കഴിഞ്ഞാല് പിന്നെ പനിയൊക്കെ വന്ന് കഴിയുമ്പോൾ ഇപ്പളും കഞ്ഞിയും അച്ചാറ് അങ്ങനെ വേഗം വയറിന് ഡൈജസ്റ്റ് ആകുന്ന രീതിക്കുള്ള ഭക്ഷണമാണ് എപ്പോഴും തരാറ് ക കഞ്ഞി പയറ് ചമ്മന്തി അച്ചാറ് അങ്ങനെ അങ്ങനെന്തെങ്കിലും ചെറിയ ചെറിയ കറികളൊക്കെ കൂട്ടി അങ്ങനെന്തെങ്കിലും ഭക്ഷണങ്ങള് തരാറ് പിന്നെ ഇഡലി കഴിക്കുക എന്ന് പറയും ഇഡലി ഭയങ്കര ഹെൽത്തി ഫുഡ്ഡാണല്ലൊ സിറിയലും പൾസുമെല്ലാം ചേർത്ത് സ്റ്റീമെയ്തെടുക്കുന്ന ഹെൽത്തി ഫുഡ്ഡാണലൊ പിന്നെ അത് ഡൈജസ്റ്റാവാനും എളുപ്പമായതുകൊണ്ട് അങ്ങനെ ഇഡലി കഴിക്കാൻ പറയാറുണ്ട് ഇതൊക്കെയാണ് പനിവരുമ്പോഴെന്തേലും അസുഖം വരുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടാക്കാറ്